പണ്ടത്തെ കാലത്ത് കുട്ടികളെല്ലാവരും രാവിലെ ഒരു ആറുമണിയോ ഏഴു മണിയോ ആകുമ്പോൾ കറക്റ്റായിട്ട് ഗ്രൗണ്ടിൽ എത്തുകയും ആ അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ പിച് കറക്റ്റ് ആക്കുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു രാവിലെ ഒരു ടീമെടുത്ത് ഫുട്ബോൾ ഫുട്ബോൾ ഒരു ദിവസം ഫുട്ബോൾ എങ്കിൽ രണ്ടാമത്തെ ദിവസം ക്രിക്കറ്റ് നമ്മള് പല പല രീതിയിൽ കളിക്കും സമയങ്ങൾ പോകുന്നതേ അറിയില്ല ഒളിച്ച് കളി ഇങ്ങനെ മരങ്ങളും കാടുകളും ഒക്കെ ഉള്ള ഉള്ളതുകൊണ്ട് അതിൻ്റിടയിൽ ഒളിക്കാൻ നല്ല നല്ല സൗകര്യമായിരിക്കും പിന്നെ നമ്മൾ ഒരുപാട് പിന്നെ ഗോലികൾ കളിക്കുവായിരുന്നു അതും അതിന്റേതായ ബെറ്റുകളും ആയിട്ട് കളിക്കും അല്ലാതെയും കളിക്കും മാച്ചിന് അങ്ങനെ എല്ലാത്തിനും നമ്മള് കളിക്കുവായിരുന്നു പിന്നെ നമ്മള് എന്തൊക്കെ കളിക്കുവായിരുന്നു കോലുകളി കളിക്കുവായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ തൊട്ട് കളി അതാണ് ഏറ്റവും കൂടുതൽ കളിച്ചിട്ടുള്ളതും ഷട്ടിലും അതൊക്കെയാണ് പണ്ട് ആ ഒരു രാവിലെ ഒരു എട്ട് മണിക്ക് കളിക്കാൻ തുടങ്ങിയാൽ രാത്രി എ ആറ് മണി വരെ നിന്ന് കളിക്കും നമ്മള് അതാണ് ഒരു ടൈമിംഗ് അപ്പം സമയം പോകുന്നത് അറിയില്ല നമ്മളിങ്ങനെ കളിച്ചു കൊണ്ടെ ഇരിക്കും ഒര് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ തോന്നുന്നില്ല എപ്പോഴോ ഇങ്ങനെ കളിക്കണം കളിക്കണം എന്ന് തോന്നും മടുപ്പ് മടുപ്പ് വരില്ല പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും പബ്ജി ഫ്രീ ഫയർ ഫ്രീ ഫയറിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരുപാട് കളിക്കുകയും ഓരോ ഓ ഓരോന്നിനും ഓരോ ഇതാണ് ക്ലാഷ് ഓഫ് ഹാൻസ് എല്ലാവരും ആ ഒരു മേഖലയിലേക്കാണ് പോയത് എല്ലാ മിക്ക കുട്ടികളും പണ്ട് നമ്മൾ ബെറ്റ് വച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു പൈസ ഉണ്ടാക്കുന്നത് ഇന്നത്തെ കാലത്ത് പിള്ളേര് ഗെയിം കളിച്ചും സ്ട്രീം ചെയ്തു ഓരോ യൂട്യൂബിലോ ചാനൽസിലോ അപ്ലോ അപ്ലോഡ് ചെയ്തു ആണ് പൈസ ഉണ്ടാക്കുന്നത് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് അല്ലാതെ പൈസ ഉണ്ടാക്കാൻ ഇപ്പം പബ്ജിയിൽ ആണെങ്കിൽ നമുക്ക് സ്ട്രീം ചെയ്യാം അങ്ങനെ ജോൾ സ്ട്രീം ചെയ്യാം അങ്ങനെ ഒരുപാട് പൈസ കിട്ടും എന്ന യൂട്യൂബില് ഫ്രീ ഫയറിൽ ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഒരു അക്കൗണ്ട് എടുത്താൽ നമുക്ക് അത് വേണമെങ്കിൽ വിൽക്കാം വിറ്റിട്ട് അത് നല്ല ഒരു പൈസ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് മാർഗ്ഗങ്ങൾ പിന്നെ ഇപ്പം തന്നെ റ റമ്മി റമ്മി എന്ന് പറഞ്ഞ ഗെയിം അത് എല്ലാവരും ഇപ്പോൾ വയസ്സായവർ തൊട്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാവരും കളിക്കുന്ന ഒരു കളിയാണ് നല്ല ക്യാഷ് നല്ല ഏൺ ചെയ്യാൻ പറ്റും

പിന്നെ സൈക്ലിംഗ് അത് നമ്മള് എല്ലാവരും മിക്കവരും ചെയ്യുന്നതാണ് അത് നമ്മള് ഗെയിംസിൽ വേണേൽ ഉൾപ്പെടുത്താം നമ്മള് റൈസ് നടത്താനും അങ്ങനെ ഒക്കെ ഓരോന്നും ചെയ്യുന്നതാണ്